കോഴിക്കോട് ജില്ലയിൽ ആളുകൾ പിന്തുടരുന്ന ചില പൊതുവായ തൊഴിലുകൾ അല്ലെങ്കിൽ ജോലികൾ ഏതൊക്കെയാണെന്ന് ഇന്ന് നമുക്കിടയിൽ തന്നെ ഒരുപാട് ജോലികളും തൊഴിലുകളും ഉണ്ട് ഇപ്പോൾ ചിലർ നല്ല ഉദ്യോ ഉദ്യോഗസ്ഥരായിരിക്കും അല്ലെങ്കിൽ ചിലർ ഡോക്ടർ ടീച്ചേർസ് എൻജിനിയേർസ് അതുപോലെ കൗൺസിലർ അക്കാദമിക് കൗൺസിലേഴ്സ് പിന്നെ പ്രിൻസിപ്പാൾ പിന്നെ റിലേഷൻഷിപ്പ് ഓഫീസർ പിന്നെ അതുപോലെ ചില സ്വന്തമായിട്ട് ഷോപ്പുകൾ നടത്തുന്ന ആൾക്കാരുണ്ടാകും ഇപ്പോൾ ജ്വല്ലറി അതുപോലെ മലഞ്ചരക്ക് കട പിന്നെ ടോയ്സിൻ്റെ കട ഫാൻസി അതുപോലെ ബാഗ്സിൻ്റെ ഷോപ്പ് അങ്ങനെ ഒരുപാടാൾക്കാർ സ്വന്തായിട്ടും ഓരോ ഷോപ്പുകൾ നടത്തുന്നുണ്ടാകും പിന്നെ മത്സ്യത്തൊഴിലാളികളുണ്ടാകും ഇപ്പോൾ കോഴിക്കോട് കൂടുതലും നമുക്ക് മത്സ്യത്തൊഴിലാളികളെ കാണാം ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ കോഴിക്കോടിൽ നിന്നും ഒരുപാട് ചോമ്പാല പോലെയുള്ള സ്ഥലങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്നത് കാണാം അതുപോലെ അത്തരത്തിലുള്ള ഒരുപാട് തൊഴിലുകളിൽ ഒരുപാടാൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ ജില്ലയുടെ സമ്പത്ത് വ്യവസ്ഥയും ജീവിത രീതിക്കും എങ്ങനെ സംഭാവന നൽകുന്നുവെന്ന് ചോദിച്ചാൽ

ഇപ്പോൾ ഇപ്പം നമുക്ക് രോഗം മാറ്റാൻ ഡോക്ടർ തന്നെ വേണമല്ലോ അപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോയാൽ അവർ അവരുടെ പിന്നെ രോഗമെന്താണെന്ന് അറിഞ്ഞ് അവർക്കതിനായുള്ള ഒരു മരുന്നുകൾ നൽകുന്നു അതുപോലെ തന്നെ ഇപ്പോൾ മത്സ്യബന്ധനം ആയിക്കോട്ടെ കടലിൽ നിന്നും പോയി മത്സ്യത്തെ പിടിച്ച് കൊണ്ട് വന്ന് അത് ഓരോ പ്രോസസ്സിലൂടെ കടന്ന് കടത്തി വിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് വിൽപ്പന ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നു പിന്നെ മാർക്കറ്റികളിലേക്ക് ഓരോ ഓരോ മീനും ഓരോ സെക്ഷനാക്കി ബാ ഭാഗിച്ച് ഓ ഓരോന്നിനെ വിൽപ്പന ചെയ്യുന്നു അതുപോലെ ഇപ്പോൾ ടീച്ചറായിക്കോട്ടെ പിന്നെ കുട്ടികൾക്ക് പ പ ഒരു എല്ലാറ്റിനെയും പറ്റി പഠിപ്പിച്ച് കൊടുക്കുന്നു അങ്ങനെ ഓരോ തൊഴിലും ഓരോ സമ്പത്ത് വ്യവസ്ഥയും ജീവിത രീതിയാണ് സംഭാവന നൽകുന്നത് ഇപ്പോൾ ഉദ്യോഗം ആണെങ്കിലും തൊഴിലാണ് സാമ്പത്തിക സംഭാവനകളാണെങ്കിലും ഏത് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജീവിത രീതിയായിരിക്കും ഇപ്പോൾ ടീച്ചർമാരുടെ ഒരു ജീവിത രീതിയായിരിക്കില്ല സ്വന്തമായിട്ട് ഇപ്പോൾ ഷോപ്പുകൾ ഉള്ള ആൾക്കാരുടെ അതുപോലെ ഡോക്ടർമാരുടെ ജോലിയായിരിക്കില്ല ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്ന ഓരോരുത്തരും ജീവിത രീതി ഓരോ ഓരോന്ന് പോലെയായിരിക്കും ഇപ്പോൾ ചെറിയവരും വലിയവരും നമുക്കിടയിൽ ഉണ്ടാകും ഇപ്പോൾ നല്ല ജോലിയുള്ളവരും ഇപ്പോൾ ശമ്പളം കുറഞ്ഞ ജോലിയുള്ളവരും ഉണ്ടാകും അപ്പോൾ ആ ശമ്പളം കിട്ടുന്നതനുസരിച്ച് ഓരോ ഓരോരുത്തരുടെയും ജീവിത രീതിയിലായിക്കോട്ടെ ഡ്രെസ്സിങ്ങിലായിക്കോട്ടെ അവരുടെ പെരുമാറ്റത്തിലായിക്കോട്ടെ എല്ലാ രീതിയിലും വ്യത്യസ്ഥമായി വ്യത്യസ്ഥതയിൽ തന്നെയായിരിക്കും നിലനിൽക്കുന്നത് അതുപോലെ തന്നെയാണ് കേരളത്തിൽ മുഴുവനായിട്ടുള്ള ആൾക്കാരും